ഹലോ ആ ഇത് കമ്പ്യൂട്ടർ ഷോറൂം അല്ലേ ആ ഞങ്ങളുടെ കമ്പ്യൂട്ടർ കംപ്ലൈൻ് ആയിട്ടുണ്ട് ആ ഡെൽ ആ സോഫ്റ്റ് വെയർ പ്രശ്നം ആണെന്നാണ് തോന്നുന്നത് കുറച്ചു ദിവസമായിട്ട് ഉണ്ട് ആ നെറ്റ് വർക്കിൻ്റെ പ്രശ്നം ഉണ്ട് സോഫ്റ്റ്വെയറിൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒട്ടും വർക്ക് ആകുന്നില്ല ആ ആ

ആ വരാം ആ ഓക്കെ ഞങ്ങൾ നേരിട്ട് വരാം പിന്നെ ഈ വൈ ഫൈ കിട്ടുന്നില്ല ഭയങ്കര നെറ്റ് വർക്കും സോഫ്റ്റ് വെയറിൻ്റെ ഒക്കെ നല്ല പ്രശ്നമുണ്ട് ആ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ടു ഇയറായി ആ പെ

ആ വരാം വരാം ആ പുതിയത് ഇറങ്ങിയുട്ടുണ്ടോ പുതിയ ഏതൊക്കെ കമ്പ്യൂട്ടറുകൾ ആ എത്രയാണ് റേഞ്ചൊക്കെ എത്രയാണ് വരുന്നത് ആ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ

കൊടുക്കാം ആ കിട്ടും ആ ആ നമുക്ക് ഇത് റെഡിയാക്കി കിട്ടാൻ പറ്റുമോ നമ്മുടെ പഴയത്

വന്നിട്ടുണ്ട് ആ വേറെ കമ്പനികൾ ഉണ്ടോ ആ

ആ ആ ആ

ആ ഇപ്പം നെറ്റ്വർക്കിൻ്റെ ആണ് പിന്നെ ഒട്ടും എന്താ പറയണ്ടേ വൈ ഫൈ ഒന്നും കിട്ടുന്നില്ല സോഫ്റ്റ്വെയർ ഇഷ്യൂ എല്ലാം ഉണ്ട് കുറച്ചായി തുടങ്ങിയിട്ട് ഇതിൻ്റെ പ്രശ്നം ഓക്കെ ആ

ആ ഓക്കെ ഓക്കെ താങ്ക്യൂ